നമ്മൾ ചെടിവളർത്താൻ കൂടുതലായിട്ടും ഇങ്ങനത്തെ എന്താ പറയുക കറുത്ത മണ്ണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറുത്ത മണ്ണിലാണ് ഏറ്റവും കൂടുതൽ വളക്കൂറും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്കിപ്പോൾ ചെടി നട്ട് കഴിഞ്ഞാൽ തന്നെ ചെറുതായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഒരാഴ്ചകൊണ്ടൊക്കെ ചെടി തളിർത്ത് വരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നമുക്ക് കറുത്ത മണ്ണ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഉണ്ടാകുക പിന്നെ ഈ ചുവന്ന മണ്ണിൽ അങ്ങനത്തെ വള വളവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതു കൊണ്ട് ചുവന്ന മണ്ണ് എന്താ പറയുക നമുക്കിപ്പോൾ നട്ട് കഴിഞ്ഞാൽ തന്നെ ചെടി വളർന്ന് വരാനൊക്കെ ഭയങ്കര പാടും കാര്യങ്ങളൊക്കെയായിരിക്കും നമ്മൾ കൂടുതലായിട്ടും കറുത്ത മണ്ണാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതിപ്പം നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചുവന്ന മണ്ണും ഒക്കെയാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ ഈ പാടത്തൊക്കെ ശേഖരിച്ചിട്ടാണ് കൂടുതലായിട്ടും ചെടിയും കാര്യങ്ങളൊക്കെ നടുന്നത് അപ്പം അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെടി നടുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ പ്ലാസ്റ്റിക് ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും കൂടകളിലൊക്കെയാണ് കൂടുതലായിട്ടും നടുന്നത് പിന്നെ ഈ സിമന്റും ചാക്ക് അങ്ങനത്തെ ചാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ചെടിയും കാര്യങ്ങളൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറമേന്ന് മണ്ണ് കൊണ്ട് വന്ന് ഇട്ട് അതിനകത്ത് നിറച്ച് ഇപ്പം ചാണാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെടി വളരാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം